പിന്നെ ഫോണിൻറെ ദോഷവശങ്ങളെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതൊരുപോലെ ഉപയോഗം പോലെ തന്നെ ദോഷങ്ങളും ഒരുപാടുണ്ട് പിന്നെ കുഞ്ഞുമക്കള് കുഞ്ഞുമക്കളൊക്കെ ഇപ്പോൾ ഫോണിന് അഡിക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഗെയിം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് എപ്പോഴും ഏത് സമയവും ഫോണിൽ തന്നെയാണ് കുഞ്ഞുമക്കളൊക്കെ പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോൾ ഗെയിം കളിയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് അവര് നിർത്താതെ ഗെയിം കളിച്ച് കൊണ്ടിരിക്കും പിന്നെ ഗെയിം കളിക്കുന്നത് മാത്രമല്ല പിന്നെ മക്കളൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കാനൊക്കെ എങ്ങനെ നേരിട്ട് സംസാരിക്കാനൊക്കെ ഭയങ്കര ഒരു മടിയുള്ള കൂട്ടത്തിലാണ് മക്കൾക്കൊക്കെ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അവരതിൽ തന്നെ മുഴുകി ഇരിക്കും പിന്നെ ഇൻസ്റ്റാഗ്രാം അതുപോലെതന്നെ ഫേസ്ബുക്ക് അതിന അതിനകത്തൊക്കെ ഒരുപാട് ദോഷ ദോഷങ്ങളും കുട്ടികളെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങളും അതുപോലെതന്നെ അവരുടെ ചിന്താഗതിയെ മാറ്റുന്ന കാര്യങ്ങളും ഒക്കെയുണ്ട് അപ്പം അതൊക്കെ ഒരു ദോഷം തന്നെയാണ് ഫോണ് കൊണ്ട് ഉണ്ടാകുന്നത് പിന്നെ അതുപോലെതന്നെ ഉപയോഗിക്ക നമ്മള് ഉപയോഗിക്കണ്ട രീതിയില് ഉപയോഗിച്ച കുഴപ്പം ഇല്ലാത്തൊരു സാധനമാണ് പക്ഷെ നമ്മള് അത് കടന്ന് പോയിക്കഴിഞ്ഞാല് ഭയങ്കര ഒരു ദോഷമാണ് ഫോണ് കൊണ്ട് ഉണ്ടാവുക നമുക്ക്